എൻ്റെൽ ആദ്യം ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല സാധനം തന്നെ ആയിരുന്നു നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്ന് ചെറിയ വയറൊന്ന് മുറിഞ്ഞിട്ട് കംപ്ലൈന്റ് ആയപ്പോൾ ഞാനെന്തെയ്തു വേറൊരെണ്ണം ഓർഡറെയ്തു നല്ല ഒരു ക്വാളിറ്റി ബ്രാൻഡ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് ഞാൻ വിചാരിച്ചത്ര ഒരു ക്വാളിറ്റിയും ഇല്ല അത്ര സൗണ്ടും ഇല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നില്ല എന്തോ ഒരു എന്താ പറയുക ഒരു ലോക്കൽ സാധനം പോലെയാണ് നല്ല പൈസ കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് എനിക്ക് ഓർഡറില് കിട്ടിയത് ഇനിയത് കമ്പനി ബ്രാൻഡ് ഒക്കെ കമ്പനി അതില് കറക്ട് എഴുതീട്ടുണ്ട് പക്ഷെ കമ്പനിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല